മുമ്പുള്ള മുമ്പുണ്ടായിരുന്നതില് നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമുക്ക് വാര്ത്താമാധ്യമങ്ങള് കൂടുതല് നമ്മുടെ ഇടയില് വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് കാലങ്ങളില് പത്രങ്ങളിലൂടെ വാര്ത്ത വായിച്ച് കേട്ടിരുന്നു അതിന് ശേഷം ടി വി മാധ്യമങ്ങളിലൂടെ വാര്ത്ത വായിച്ചു കേട്ടിരുന്നു ഇപ്പോഴിങ്ങോട്ട് മാറി ഇന്റര്നെറ്റിന്റെ സംവിധാനം ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങളാണിപ്പോള് അതുവഴിയായിട്ട് വാര്ത്തകളൊക്കെ പ്രചരിക്കാന് തുടങ്ങിയപ്പോഴ് ഇന്ന് വാര്ത്തകള് വിരല്ത്തുമ്പിലായി മാറിയിരിക്കുന്നു വാര്ത്തകള് മാത്രമല്ല ഈ ലോകത്തിലെ എതിനെക്കുറിച്ച് നമുക്ക് അറിയണമോ അതിനെക്കുറിച്ചൊക്കെ അറിയുവാനായിട്ടുള്ള ഒരു മേഖലയായിട്ട് ഈ ഇന്റര്നെറ്റ് സംവിധാനങ്ങള് രൂപപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴ് നമുക്ക് ഫോണ് ഉപയോഗിക്കുന്നവരാണെങ്കില് ഫോണിലൂടെ എത്രയും പെട്ടെന്ന് നമുക്ക് വാര്ത്ത കാണാന് സാധിക്കും പണ്ട് കാലങ്ങളില് ഒരു വാര്ത്ത സൃഷ്ടിക്കപ്പെട്ട് നടന്നതിന് ശേഷം അത് വളരെ പ്രയാസപ്പെട്ടാണ് ടിവിയിലും റേഡിയോയിലൂടെയൊക്കെ നമ്മള് കേട്ടു കൊണ്ടിരുന്നത് ഇന്ന് ടി വി ഓണാക്കിയാല്പ്പോലും അടുത്തത് സെക്കന്ഡില് നടക്കുന്ന വാര്ത്തകള്പോലും അതാത് സെക്കന്ഡ്കളില് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയിലേക്ക് മാധ്യമ സാങ്കേതിക വിദ്യകളൊക്കെ പുരോഗമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്റര്നെറ്റിന്റെ കാലഘട്ടം അതിവേഗം വളര്ന്നിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അപ്പോള് ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങള് ഇന്ന് നമ്മളെ സംബന്ധിച്ച് സ മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് പറഞ്ഞ് കഴിഞ്ഞാല് സാധാരണക്കാരുടെ കൈകളില്പ്പോലും ഇന്ന് ഒരു ആണ്ട്രോയിഡ് ഫോണ് എത്തി നില്ക്കുന്ന സ്ഥിതിവിശേഷവാണ് അപ്പം ഇതെക്കെ ശെരിക്കും പറഞ്ഞാല് വാര്ത്തകള് മറ്റുള്ള അറിയിപ്പുകള് നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങള് എന്ന് വേണ്ട ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന ഗുണമുള്ളതും ഗുണമില്ലാത്തതുമായ ഒട്ടനവധി കാര്യങ്ങള് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വാര്ത്ത ഈ മേഖലകളിലൂടെ അത് വളരെ ഒരു ഗുണം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് എല്ലാവര്ക്കും ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാലും ആ ഈയൊരു ഫോണോ അല്ലെങ്കില് ഇന്റര്നെറ്റ് സംവിധാനത്തിലൂടെയുള്ള ഫോണുകളോ അല്ലെങ്കില് ഇതൊന്നും നമുക്ക് അത്ര പെട്ടെന്നെനിക്ക് മനസിലാവുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു പക്ഷെ ഇപ്പോഴ് ശെരിക്കും പറഞ്ഞാല് ഈയൊരു മൊബൈല് പോലെത്തെ ഒരു സംവിധാനവില്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാന് പറ്റാത്തൊരു അവശേഷമാണു കാരണം എന്തെന്ന് ചോദിച്ച് കഴിഞ്ഞാല് ഇന്ന് ബാങ്കിങ്ങിന്റെ മേഖലകള് പോലും ഇന്ന് ഫോണിലൂടെയാണ് ഇന്നൊരു സര്ട്ടിഫിക്കറ്റ് മേഖല കള് പോലും ഇന്ന് ഈ ഫോണിലൂടെ ഇന്റര്നെറ്റ് സംവിധാനത്തിലൂടെ മാറ്റപ്പെട്ടിരിക്കയാണ് പൊതുതാല്പ്പര്യ മായ എന്ത് മേഖലകളായാലും അതൊക്കെ ഇന്ന് ഈയൊരു വാര്ത്തയുടെ വ്യാവസായിക മേഖലയില് മുന്പന്തിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് സാങ്കേതികവിദ്യകളൊക്കെ പുരോഗമിച്ച് കൊണ്ടിരിക്കയാരുന്നു ടൂ ജിയില് തുടങ്ങി ഇന്ന് ഫൈവ് ജിക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഈ ഇന് ഈ കണക്കിന് മു മുൻപോട്ട് പോകുമ്പം ഇത് ഏറ്റവും കൂടുതലുപകാരപ്പെടുന്ന ഒരു മേഖലയാണ് അതുപോലെതന്നെ ഒരു ദോഷവശം ഇത് എന്താ പറയുന്നത് ഒരുപാട് പേര്ക്ക് ദോഷകരം ചെയ്യുന്നത് മേഖലകളിലേക്കും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു കൊച്ചു കുട്ടികൾക്കിടയിലൊക്കെ പോലും ചോദിച്ചാല് വിരല്ത്തുമ്പിലെന്ന് പറയുന്നത് പോലെ ഓരോ സാങ്കേതികവിദ്യകള് ഇന്ന് എടുത്ത് കാണിക്കുവാനായിട്ട് അവര്ക്ക് സാധിക്കുന്ന ഒര് അവസ്ഥ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇത് വളരെ വലിയൊരു മാര്ക്കറ്റിങ്ങാണിപ്പോഴ് ശെരിക്കും പറഞ്ഞാല് ഇന്ന് നമുക്ക് കാണുവാന് സാധിക്കുന്ന മാര്ക്കറ്റിങ്ങ്കളില് ഏറ്റവും വലിയൊരു മാര്ക്കറ്റിങ്ങാണ് ഇന്ന് ഈ സംവിധാനം ഇന്ന് ഈ രീതിയിലുള്ള സംവിധാനങ്ങള് വ്യവസായിക മാധ്യമ സംവിധാനങ്ങളെന്ന് വേണമെങ്കിലതിനെ നമുക്ക് വിളിക്കാം അതുകൊണ്ട് ഇന്ന് ഇപ്പോഴ് ഒരു റേഷന് കാര്ഡിനെപ്പറ്റിയുള്ള വിവരം അല്ലെങ്കില് ഒരു ആധാറ്മായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള് അല്ലെങ്കില് ഇന്ന് കരണ്ട് ബില്ല് സംബന്ധമായ വിവരങ്ങള് ഗ്യാസ് ബുക്കിംഗ് സംബന്ധമായ വിവരങ്ങള് എന്ന് വേണ്ട മനുഷ്യജീവിതത്തിന് അത്യാവശ്യമായി വേണ്ടപ്പെട്ട ഒട്ടനവധി മേഖളകള് ഈയൊരു സാങ്കേതിക വ്യവസായം വഴിയായിന്ന് മനുഷ്യന്റെ മുമ്പില് എത്തപ്പെട്ടിരിക്കുകയാണ് വളരെ നല്ല ഒരു കാര്യമാണത് അതിനെ ഇന്ന് ലോകം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ആ അവസ്ഥയിലേക്കാണിന്ന് പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഉള്ള കാലഘട്ടങ്ങളെല്ലാം ഒരു ഇന്റര്നെറ്റ് സംവിധാനത്തിലൂടെ ഒക്കെ രൂപപ്പെടുന്ന അവസ്ഥകളിലേക്ക് മാറ്റപ്പെടുന്നതില് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്